ഞാൻ വ വി ഞാൻ സേതുലക്ഷ്മി ആയിരുന്നു ഞാൻ വിളിച്ചത് ഈ ഇൻഡോർ പ്ലാൻ്റസിനെ കുറിച്ച് ഒന്നു എൻക്വയറി നടത്താൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു അപ്പം ഞങ്ങളപ്പോൾ പുതിയ വീടുവെച്ചു അപ്പോൾ കുറെ ഞങ്ങൾക്ക് കുറച്ച് ക്രെയ്സ് ഉണ്ടേ ഈ ഇൻഡോർ പ്ലാൻ്റസിനെ കുറിച്ച് അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് അപ്പം നെറ്റിൽ നോക്കിയപ്പം ഷോപ്പിൻ്റെ നമ്പർ കിട്ടി അങ്ങനെ വിളിച്ചതായിരുന്നു ആ അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇൻഡോർ പ്ലാൻ്റസിനെ കുറിച്ച് അതിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ആ അപ്പം ആ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറയാമോ ഞങ്ങൾക്ക് അപ്പോൾ മെയിൻലി സിറ്റ്ഔട്ടിലും ഹാളിലും കൂടെ വെയ്ക്കാൻ വേണ്ടിട്ടുള്ളതായിരുന്നു വേണ്ടത് അ അപ് ആ ആണോ അപ്പോൾ അത് വെയ്ക്കാൻ ഉള്ള അത് വെയ്ക്കാൻ ഉള്ള ചട്ടി പാത്രം അങ്ങനത്തെ വേ ഇതിനൊക്കെ മെറ്റീരിയൽസിനൊക്കെയോ ആ ആണോ ആ ഓക്കേ അപ്പോൾ ഈ നിങ്ങൾ അവിടെ ഇൻഡോർ മാത്രം ഉള്ളോ അതോ ഔട്ട്ഡോറും ഉണ്ടോ ആ ഓക്കെ അപ്പം റേറ്റ് അപ്പോൾ നമ്മൾ കോണ്ടാക് അവിടെ നേരിട്ട് വന്ന് ആണോ അതോ ഷിപ്പിംഗ് ഉണ്ടോ ആ ഓക്കേ മാം താങ്ക് യൂ